കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം കളിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങളെനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിലെ ഉത്സവങ്ങളോടനുബന്ധിച്ച് മാത്രം മാത്രം നടത്തുന്ന ഒരു കലാരൂപമായിട്ടൊതുങ്ങി നിൽക്കുന്നു ഒതുങ്ങി പോകുന്നു എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ നമുക്ക് കുറച്ച് കൂടി നമ്മുടെ കേരളത്തിൻ്റെ തനതായ കലാ കലാരൂപങ്ങളൊക്കെ കേരളത്തിൽ നമ്മുടെ എന്താണ് കോമൺ പ്രോഗ്രാമിനകത്തൊക്കെ ഈ കഥകളിയും മോഹിനായാട്ടവുമൊക്കെ ഉൾപ്പെടുത്തി ഇതിനെ കുറച്ചും കൂടെ പബ്ലിക്കിലെ ആൾക്കാർക്ക് കാണാവുന്ന രീതിയില് എല്ലാ ആൾക്കാർക്കും കാണാവുന്ന രീതിയിലുള്ളൊരു കഥ കലാരൂപം മാത്രം നമുക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കും എങ്കിൽ മാത്രമേ കഥകളി എന്താണ് ഞാനിതുവരെ എൻ്റെ എനിക്കിത്രയും വയസായെങ്കിലും ഞാനിതുവരെ കഥകളി കണ്ടിട്ടില്ല ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും മോഹിനിയാട്ടം അല്ലാതെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കോമൺ ഫങ്ഷനകത്തുനിന്നു മോഹിനിയാട്ടത്തിനെ കോമൺ ഒരു പ്രോഗ്രാമായിട്ട് കാണുകയല്ല പിന്നെ സ്കൂളുകളിലുള്ള കോമ്പറ്റീഷനൊരൈറ്റമാണ് മോഹിനിയാട്ടവും കഥകളിയും കൂടിയാട്ടവും എനിക്ക് തോന്നുന്നു ആ സ്കൂളുകളിലുള്ള കോംപറ്റീഷൻ മേഖലയ്ക്കപ്പുറത്തേക്ക് ഇതൊന്നും പ്രദർശിപ്പിക്കപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ കഥകളി നമുക്കൊരു ഒരു ജോബ് ഓറിയൻറ്റഡായിട്ട് പോകാനും പറ്റത്തില്ല ഇങ്ങനേക്കവര് കഥകളികാരൻ അല്ലേ മോഹിനിയാട്ടകാരി ഇതല്ലാതെ ഒരു അവർക്കൊരു ഇൻകം ജനറേഷനായിട്ടുള്ള ഒരു പ്രോഗ്രാമൂമില്ല അത് കാരണം ഈ സ്കൂൾ ലെവലിലുള്ള കോംപറ്റീഷൻ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ കലാരൂപങ്ങളൊന്നും ആരും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തനതായ കലാരൂപങ്ങളിങ്ങനെ ക്ഷേത്രാങ്കണത്തല്ലെങ്കിൽ ക്ഷേത്രങ്ങളിളിലെ അമ്പലത്തിലെ ഉത്സവങ്ങളിൽ പിന്നെ കാണുന്നത് അമ്പലത്തിലെ ഉത്സവങ്ങളിലാണ് അമ്പലത്തിലെ ഉത്സവങ്ങളിലും ഒതുങ്ങി നില്ക്കുന്നതായിട്ട് നമ്മളിപ്പോള് ടൂറിസം പോലുള്ള മേഖലകളിലൊക്കെ ഇങ്ങനത്തെ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാലും അതും വളരേ എപ്പോഴുണ്ട് എന്ന് തോന്നുന്നില്ല എന്തേലും ആൾക്കാര് ആ ചോദിച്ചെങ്കിൽ മാത്രം നമ്മളതില് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമെന്നല്ലാതെ അതിനെ കോമണായിട്ട് ടൂറിസത്തിനോടനുബന്ധിച്ചൊരു ടൂറിസ്റ്റ് അട്ട്രാക്ഷനായിട്ട് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല